തെരഞ്ഞെടുപ്പ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ആണെങ്കില് നമ്മള് മറ്റുള്ളവരിലേക്കിങ്ങനെ ഏത് സ്ഥാനാർഥിയാണ് ഏത് ചിഹ്നമാണ് നമ്മളേത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യേണ്ടത് ഏത് ചിഹ്നമാണ് നമ്മള് ഇങ്ങനെ ആ സ്ഥാനാർഥിയുടെ ചിഹ്നമായിട്ട് നമ്മള് എടുക്കണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളും തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മള് കേൾക്കുന്ന ഈ നമ്മള് റോഡ് മുഴുവൻ കേൾക്കുന്നൊരു സംഭാഷണം മുഴുവനും അതാണ് തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ടുള്ള കാര്യം ഇങ്ങനൊക്കെയാണ് പക്ഷേ അത് അമിതമായി കഴിയുമ്പോൾ നമുക്ക് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായി മാറും കാരണം പല പല സ്ഥലങ്ങളിലും എപ്പോഴും ഇങ്ങനെ കേട്ട് കേട്ട് കേട്ട് കേട്ട് നമ്മള് തന്നെ പറയും ഇതിവർക്ക് നിർത്താൻ മേലേ നിർത്താറായില്ലേ ചെവിക്കെന്തൊരു വേദനയാണ് തലവേദനയെടുക്കുന്നു അങ്ങനെയുള്ളൊരു ശാരീരികമായ ബുദ്ധിമുട്ടുകള് നമ്മള് അനുഭവപ്പെടുന്നുണ്ട് പിന്നെ മറ്റുള്ളവർക്ക് അത് പല രീതിയിലായിരിക്കും ചിലർക്ക് അറിയാൻ മേലാത്തവർക്ക് സ്ഥാനാർഥിയുടെ പേരും സ്ഥാനാർഥിയുടെ ചിഹ്നവുമൊക്കെ കേള്ക്കുന്നവര് അതിൽ നിന്നായിരിക്കും ചിലപ്പോൾ മനസ്സിലാക്കുന്നത് പിന്നെ അവരവരുടെ സ്ഥാനാർത്ഥികള് വിജയിക്കണം അവരുടെ സ്ഥാനാർത്ഥികൾക്ക് കൂടുതല് വോട്ട് കിട്ടണം എന്നുള്ള രീതിയിലൊക്കെ വരുമ്പഴ്ത്തേക്കിനാണ് ഇങ്ങനെയുള്ള ഓരോരോ തെരഞ്ഞെടുപ്പ് കാര്യങ്ങള് അവര് ചെയ്യുന്നതുകൊണ്ട് നല്ലതാണ് എന്നുള്ള ഒരു ഇങ്ങനൊക്കെയുള്ള ഇത് വരുന്നത് പിന്നെയത് അരോചകമായി തോന്നുമ്പോള് നമുക്കൊരു ബുദ്ധിമുട്ടായി മാറും ഇത് ഇതൊരു കളിയാണ് ഇത് ഇതും മറ്റുള്ളവർക്ക് അറിയാൻ മേലേ അല്ലെങ്കില് നമ്മള് ടി വി വാർത്ത കേള്ക്കുന്നതല്ലേ പിന്നേ എപ്പോഴും എപ്പോഴും ഇത് തന്നെ പറയുന്നതെന്തിനാണെന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങള് നമ്മള് പറയുന്നത്